ഇവിടെ മഴക്കാലത്ത് നമ്മൾ പുഴയിലൊക്കെ പുഴയിലല്ലെങ്കിൽ വയലിൽ കയറുന്ന വെള്ളത്തിൽ ചൂണ്ടയിടാനൊക്കെ പോകലുണ്ട് സാധാരണ നമ്മൾ പുഴയിൽ പോയിട്ട് ചൂണ്ടയിടാറുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഞാനും എന്റെ ഒരു കൂട്ടുകാരന്മാരും വൈകുന്നേരം സാധാരണ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോയി ഇടലുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ആറ് മണിക്ക് ശേഷം ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരും കൂടി വെറുതെ ചുമ്മാ പോയി ഇട്ട് നോക്കിയതാണ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു പുഴയുണ്ട് ആ പുഴയിൽ പോയിട്ട് ഇട്ടപ്പോൾ അതും സാധാരണ നമ്മൾ വലിയ ഏറ് ചൂണ്ടയൊക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കല് ഇത് വെറും ചെറിയൊരു ചൂണ്ടയായിരുന്നു നോക്കുമ്പോൾ പ്രതീക്ഷിക്കാണ്ടതിലൊരു അഞ്ചാറ് കിലോ ഉള്ളൊരു ചെമ്പല്ലി അങ്ങ് അടിച്ചു എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി കാരണം വലിയ ചൂണ്ടയിട്ട് ഏറ് ചൂണ്ട ഇട്ടിട്ട് തന്നെ കിട്ടാത്ത മീനാണ് വെറും സാധാരണ ഒരു ചൂണ്ടയിൽ ഞമ്മക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഷോക്കായിപ്പോയി ഇത്രയും വലുത് ഞങ്ങളന്ന് കണ്ടിട്ടുണ്ട് ഇതിന് മുൻപേ കൂട്ടുകാർക്കൊക്കെ കിട്ടിയത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന് അത്രയൊരു വലിയ ചെമ്പല്ലി ആദ്യമായിട്ട് കിട്ടുകയായിരുന്നു അപ്പോൾ വളരെ സന്തോഷമായി എല്ലാവരും എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ